ആ ചേട്ടാ ആ അല്ല കുറച്ച് തെങ്ങിൻതൈ എടുക്കാമെന്ന് വച്ചിട്ട് വന്നതാണ് അല്ല എനിക്ക് കുറച്ച് ഒരു പറമ്പിലേക്ക് ഒരു പത്തെണ്ണവും പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ ഒരു ചെറിയ തരത്തിൽ ഉള്ള ഒരു രണ്ടെണ്ണവും വേണം ഓ ഇപ്പോൾ

ആ ഇതിലിപ്പോൾ ഇതിൽ ഇപ്പോൾ മികച്ച നന്നായിട്ട് വിളവ് കിട്ടുന്ന ഏതാണ് നല്ലത് അഞ്ച് വർഷം അല്ലെ നമുക്ക് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്ന ടൈപ്പ് ഏതാ ഉള്ളത്

ചാവക്കാടൻ കുള്ളൻ അല്ലേ ആ ഇതോ ആ അത് കായ്ക്കണത് കുറച്ച് നന്നായി കായ്ക്കണത് ആണെങ്കിൽ പറമ്പിൽ വെക്കാം അല്ലെ ഓ എന്നാൽ പിന്നെ നമ്മളുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു രണ്ടെണ്ണം വെക്കണമെന്ന് ഉണ്ട് അപ്പോൾ മറ്റെ ചാവക്കാടൻ കുള്ളൻ വെക്കാമല്ലേ വീടിന്റെ ഫ്രണ്ടിൽ ആണെങ്കിൽ അതിൽ ഏതാണ് കുറച്ച് നല്ലത് ആ അല്ല അതു സാധാരണ അപ്പോൾ വീട്ടിൽ ഇപ്പോൾ വെക്കാവുന്നത് ഏതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും എടുക്കുന്നത് ഏതാണ് ആ ചെന്തെങ്ങ് മതി കേട്ടോ ചെന്തെങ്ങാണ് കുറച്ച് നല്ലത് തോന്നുന്നു അല്ലെ ആ ഓക്കെ അപ്പോൾ ഈ പറമ്പിൽ വെയ്ക്കാൻ ഒരു പത്തെണ്ണം എടുക്കണം അപ്പോൾ അതിൽ ആ ഇതുതന്നെ എടുക്കാമെന്ന് തോന്നുന്നു ഒന്നര വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞത് സ്ഥലം കുറച്ചുതന്നെ ഉള്ളൂ ഒരു ആറേഴ് സെന്റിനേ ഉള്ളൂ അത് ആ അതിൽ നമുക്ക് കുറച്ച് ഒരു പത്തെണ്ണം ഇപ്പോൾ വച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ആണ് ആ എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതിന് പറ്റിയ ഇതിൻ്റെ എനിക്ക് ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വേണ്ടിയിട്ട് വന്നതാണ് ഈ ഗംഗാ ഗംഗാ ബോട്ടം ആണ് കുറച്ച് ഒന്നര വർഷത്തിനുള്ളിൽ കായ്ക്കുന്നത് അല്ലേ ഒരു തൈക്ക് അല്ലെ

ആ ഓക്കെ പിന്നെ ഒരു ഒരു തൈക്ക് എത്രയാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ അല്ലേ ഇത് ഇപ്പോൾ നമ്മൾ എന്താണ് പറമ്പിൽ വെയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ അകലം വേണം അല്ലേ കുഴി കുഴി എത്ര ഓ ഓക്കെ

കറക്റ്റ് ആയിട്ട് തടവും എടുത്ത് വെയ്ക്കണം അല്ലെ ആ ഓക്കെ നമ്മൾ ഈ വെള്ളം വെള്ളം നനക്കണത് എങ്ങനെ ആണ് സെറ്റപ്പ് അതായത് ഏതൊക്ക സമയത്ത് നനക്കണത് ഓ വേനൽ കാലത്ത് അത്യാവശ്യം നല്ല വെള്ളം അടിച്ച് കൊടുക്കണം അല്ലെ

ഓക്കെ ഓക്കെ ചേട്ടാ അപ്പോൾ നമുക്ക് ഈ ഈ ഗംഗാ ബോട്ടം തന്നെ എടുക്കാം അല്ലേ ആ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു ഈ ഗംഗാ ബോട്ടം ഒരു പത്ത് എണ്ണം എടുത്തോളൂ ചേട്ടാ പിന്ന അതുപോലെ ആ ചെന്തെങ്ങ് ഇല്ലേ മുറ്റത്ത് വെയ്ക്കാൻ ഏതാണത് കാസർഗോഡ് ആ അതൊരു അത് ഒരു രണ്ടെണ്ണം എടുത്തോളൂ അപ്പോൾ പിന്നെ ശരിയായി ഇപ്പോൾ ചാവക്കാട് കുള്ളൻ എത്ര റേറ്റ് വരുന്ന മുന്നൂറ് ഇല്ലെ ഓക്കെ ശരി ഏട്ടാ എന്നാൽ അത് എടുത്തോളൂ അത് ആ ശരി